ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ ഒന്ന് തൊട്ട് നാല് വരെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള എൽ പി സ്കൂളിലാണ് പഠിച്ചത് അവിടുന്ന് അഞ്ചാം ക്ലാസിലേക്ക് പുതിയ ഹൈസ്കൂളിലേക്കാണ് പോയത് അവിടെയാണ് അവിടുന്ന് വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കാൻ പഠിക്കാൻ മിടുക്കി ആയിരുന്നു ഞാൻ അതുപോലെ ചെറു ചെറിയ രീതിയിൽ എനിക്ക് ഡാൻസ് നല്ല പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ചെറിയ രീതിയിൽ അവിടുന്നാണ് യുവജനോത്സവത്തിന് ചേർന്നിട്ട് നല്ലോണം ഡാൻസ് ഗ്രൂപ്പ് ഡാൻസും തിരുവാതിരയൊക്കെ കളിക്കുമായിരുന്നു അപ്പോഴേ എനിക്കൊരാഗ്രഹമായിരുന്നു പുറത്ത് എവിടെയെങ്കിലും ഡാൻസ് ക്ലാസിന് ചേർന്നിട്ട് പഠിക്കണം പഠിക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ എല്ലാം എല്ലാത്തിലും പങ്കെടുത്ത് സമ്മാനം വാങ്ങുമായിരുന്നു അഞ്ച് കഴിഞ്ഞ് ആറ് കഴിഞ്ഞ് ഏഴാം ക്ലാസിലെത്തുമ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം നമ്മളെ വല്ലാതെ തളർത്തി പിന്നെ എൻ്റെ ആഗ്രഹം ഒക്കെ അടക്കിവെച്ച് ഞാൻ വെറും വിദ്യാഭ്യാസത്തിന് ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ലാന്ന് തീരുമാനമായി അതുകൊണ്ട് ഞാൻ പഠിപ്പിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഞാൻ പഠിച്ചു പഠിച്ചിട്ട് എനിക്ക് ചെറിയ ജോലിയൊക്കെ ജോലിയായി ജോലി ആയതിനുശേഷം ഞാൻ വിചാരിച്ചു എനിക്കുള്ള ആ കഴിവ് എന്തായിട്ടും വികസിപ്പിച്ചെടുക്കണം എന്നാണ് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് വീട്ടിൽ അമ്മയും അനിയത്തിമാരെയും സഹായിച്ചു ബാക്കി കിട്ടുന്ന ഒരു ചെറിയ തുക കൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനെടുത്തു എനിക്ക് ഡാൻസ് ക്ലാസിന് ചേർന്നേ പറ്റൂ ചേരണം എന്ന് അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസിന് ചേർന്നു അവിടുന്ന് ഭരതനാട്യം കുച്ചുപ്പുടി മോഹിനിയാട്ടം ഒക്കെ പഠിച്ചു പഠിച്ചിട്ട് ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എൻ്റെ ആഗ്രഹം ഞാൻ ഒരിക്കലും എന്നെ ഒരു സ്റ്റേജിൽ കളിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ കഴിവൊക്കെ ഒക്കെ അവിടെത്തന്നെ അവസാനിച്ചു എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇല്ല ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ പല പല സ്റ്റേജികളിലും എൻ്റെ ഡാൻസ് അവതരിപ്പിക്കാൻ തുടങ്ങി അവിടുന്ന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി അങ്ങനെ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു സന്തോഷിച്ചു അതുപോലെ അമ്പലത്തിലും നമ്മളുടെ ചുറ്റുപാടുള്ള അമ്പലത്തിൻ്റെ വേദിയിൽ വെച്ചും ഞാൻ കുറെ നൃത്തം കളിച്ചു അത് അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ ഒരിക്കലും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എൻ്റെ ആ കഴിവുകളെ വീണ്ടും വികസിപ്പിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ഇന്ന് ഇന്ന് ഞാൻ ഏതൊരു ഏതൊരു ഉത്സവം ഉണ്ടെങ്കിലും അവിടെ ഞാൻ എൻ്റെ നൃത്തം അവതരിപ്പിക്കാറുണ്ട് കുഞ്ഞുമക്കൾക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇന്ന് എൻ്റെ എൻ്റെ ഉടമസ്ഥതയിൽ എൻ്റെ ഇതിൽ പഠിക്കുന്നുണ്ട് അതുതന്നെ എനിക്ക് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം